ഞാന് ജോലി സ്ഥലത്ത് സംഘർഷങ്ങളും പ്രയാസൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഓവർ സ്ട്രെസ്സ് ആവില്ല ഒരാളുടെ നമ്മളിപ്പം എന്തൊക്കെയായാലും വീട്ടിലെത്താതെ അത് ഇപ്പോൾ ആ പ്രശ്നം വീട്ടില് നമുക്ക് ഭയങ്കര സ്ട്രെസാണ് നമ്മള് ഭയങ്കര ടയേഡാണ് ഭയങ്കര ദേശ്യാണ് നമുക്ക് അല്ലെങ്കിൽ എന്തേലും ഫയല് മിസ്സാണ് എന്തെങ്കിലും ക്യാഷിൻ്റെ പ്രോബ്ലം ആണ് പക്ഷെ അത് വീട്ടിലെത്തിയിട്ട് മക്കളോടും ഹസ്ബൻറ്റിനോടും പറഞ്ഞു തീർക്കാറില്ലാ അത് അവിടെ തീർക്കുകയാണ് ചെയ്യാ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കില് വീട്ടില് പിന്നെ കുഞ്ഞുങ്ങളുടെ അമ്മയും ഹസ്ബൻറ്റിൻ്റെ ഭാര്യയും മാത്രയിരിക്കാനാണ് ശ്രദ്ധിക്കാ അമ്മയുടെ മോളും അല്ലാതെ നമ്മള് അത് വീട്ടിൽ കൊണ്ടു വന്നിട്ട് അതൊരു വലിയൊരു ഇതാക്കി മൂഡോഫായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ജോലി സ്ഥലത്തെ പ്രശ്നം അവിടെ ചെന്നിട്ട് എന്താണ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടേന്ന് ആലോചിച്ച് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ ഹെഡിനോട് പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കുക നമ്മളെ അടുത്ത് തെറ്റില്ലെങ്കിൽ നമ്മള് ആരെ മുഖത്ത് നോക്കി കള്ളം നമ്മള് ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മള് ചെ തെറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യായിട്ട് പറയാം ഞങ്ങളുടെ അടുത്തുന്നല്ലാ മിസ്റ്റേക്ക് വന്നേക്കുന്നത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ചൂണ്ടിക്കാണിക്കാം നമുക്ക് അങ്ങനെയാണ് ചെയ്യാറ്